എൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ സൈക്കിൾ ആണ് ഉള്ളത് ഇപ്പൊൾ എൻ്റെ കൈയില് പക്ഷെ എനിക്ക് അതിലും വലിയൊരു നല്ലൊരു അടിപൊളി സൈക്കിൾ വാങ്ങണം എന്നുണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപയിൻ്റെ അതായത് നമുക്ക് ഇപ്പം വണ്ടിയിലൊക്കെ യാത്രചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിട്ടുള്ള അതായത് വലിയ സൈക്കിളാണെങ്കിൽ നമുക്ക് അത് നീളത്തിൽ വെച്ചിട്ട് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മള് സൈക്കിൾ സൈക്കിൾ കാരിയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വണ്ടിയുടെ ബാക്കിൽ തൂക്കി കഴിഞ്ഞാലാണ് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അപ്പൊൾ അതിലും നല്ലതു നമുക്ക് കൊണ്ട് പോകാൻ പാകത്തിന് ഇപ്പം ചില സൈക്കിൾ ഇലെക്ട്രിക്കൽ കൂടെ വരുന്ന സൈക്കിൾ ഉണ്ട് നമുക്ക് ചവിട്ടിയും ഓടിക്കാം അല്ലാണ്ടു നമ്മൾ മടുക്കുവൊക്കെ ആണെങ്കില് ഇലെക്ട്രിക്കലും പ്രവർത്തിപ്പിച്ച് ഓടിക്കാവുന്ന സൈക്കിൾ ഉണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതായത് വാങ്ങണം എന്ന് അത് വാങ്ങണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം അതിന് ഒരു അമ്പത്തയായിരം അറുപതിനായിരം അതിനടുത്ത് വരും ക്യാഷ് അപ്പൊൾ അതിനുള്ള തയാറെടുപ്പിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് അതാണെങ്കിൽ നമുക്ക് സൗകര്യമാണ് കാരണം എന്ന് വെച്ച്കഴിഞ്ഞാല് നമുക്ക് ഞങ്ങക്ക് ഞങ്ങൾക്ക് ഇപ്പൊൾ ഏതെങ്കിലും കയറ്റം ഒക്കെ എത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ ചവിട്ടി കയറ്റാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുമല്ലോ അപ്പൊൾ അതിലും നല്ലത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ത്രോട്ടിൽ ഇത് അതായത് ഈ ഇലെക്ട്രിക്കിൻ്റെ സൈക്കിൾ ആണെങ്കില് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാല് മെല്ലെ അത് കേറിക്കോളും ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കിട്ട് നമുക്ക് ചവിട്ടുന്ന രീതിയിലും ആകാം അങ്ങനത്തെ സൈക്കിളാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു അമ്പത്തിരണ്ടായിരം അറുപതിനായിരം അടുത്ത് വിലയുണ്ട് അപ്പം അത് വാങ്ങാനാണ് എൻ്റെ ആഗ്രഹം